അതെ അല്ലോ

അതെയോ ആ ആ ആ അതെയോ ആ ആ നമ്മൾക്ക് നോക്കാം പറഞ്ഞ് നോക്കാം ആളുണ്ട് അപ്പം പറഞ്ഞ് ചെയ്യാൻ നോക്കാം ഉം

ആ ആ അ ആ ആ ആ ആ ആ ഉണ്ടാവും ഉണ്ടാവും നമ്മൾ വടെക്കേരി കുറച്ച് വില കുറവിന് കിട്ടും മടിക്കേരി അങ്ങോട്ട് നിന്നാണ് കൊണ്ടു വരൽ പൂവ് അപ്പോൾ കുറച്ച് വില കുറച്ചിട്ട് കിട്ടും അപ്പം നല്ല പൂവാണ് അവരെ ആ നമ്മൾക്ക് ഇവിടെ ഇവിടെ അടുത്ത് ഒരു അയ്യപ്പ മന്ദിരം എല്ലാമുണ്ട് അപ്പം അവിടുത്തേക്കെല്ലാം അവിടെ നിന്നാണ് പൂവ് കൊണ്ട് വരൽ കൊണ്ട് വന്നിട്ട് ആ കൊടുക്കൽ ആ ആ അപ്പോൾ ആ നല്ല പൂവ് ആ ആ ആ ആ ആ ആ

ആ ആ ആ വന്നിട്ട് നോക്കാം ഇത് എവിടെയാണ് ഇത് സ്ഥലം ചിന്മയ ഹോള് ആ ആ ആ ആ ആ ആ ആ ആ ആ ആ ആ ആ ആ ശരി വരാം ആ ആ അറിയാം ഉം ഉം ആ ഇല്ല ഇല്ല ആ ഞാൻ വരാം ഉം ആ ആ ആ ആ ആ ആ നല്ല മോഡലിൽ ആയിട്ട് വേണം നല്ല ആ ആ ആ ആ ആ ചെയ്യാം നമ്മൾക്ക് ആ ആ ആ ആ ആ ആ ആ ആ ആ ആ ചെയ്യാം ആ ഉം എല്ലാം നോക്കിയിട്ട് ആ ആ ആ ചെയ്യാം ആ ആ ആ ആ ആ ആ അപ്പോൾ മുല്ലപ്പൂ വേണ്ടെ വേണ്ടി വരുമോ മുല്ലപ്പൂ അല്ല ഞങ്ങൾക്ക് ഡെക്കറേഷന് മാത്രം അല്ലല്ലോ കല്ല്യാണം എ ആ ആ ആ അപ്പൊ ആ ആ ആ ആ ആ ഇല്ല ആ എല്ലാം തരാം ആ അങ്ങ് കൊണ്ട് വന്നിട്ട് ആ ഇല്ല ഇല്ല ഇല്ല ഇല്ല എനിക്ക് ഓർമ്മയുണ്ടാവും ഉം ആ ആ ആ ആ ആ ആ ആ ആ ആ ആ ആ ഇത് എപ്പോഴാണ് ഡേറ്റ് ഡേറ്റ് എപ്പോഴാണ്

ആ ആ ആ ആ ആ ആ ആ ഓക്കെ ആ ആ ആ ആ ആ ഓക്കെ ആ ഉം ആ ഓക്കെ ഉം